ഹലോ നിങ്ങളിപ്പോൾ എവിടെ എത്തിയെന്നാണ് പറഞ്ഞത് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടായിന് ഞാൻ എറണാകുളത്ത് മറ്റെ ഇടപ്പള്ളിയിലാണ് നിൽക്കുന്നത് ആ ഓക്കേ ഓക്കേ ഓക്കേ അവിടെത്തന്നെയുണ്ടോ പക്ഷെ ഞങ്ങൾ ഞാനിവിടെ കാണുന്നില്ല ഞാനിവിടെ ഉഡുപ്പി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുണ്ട് ആ ഓക്കേ ഇപ്പം ഇപ്പോൾ വരുമോ നിങ്ങളോട് നേരത്തെ വിളിച്ചപ്പോൾ നിങ്ങളിവിടെ എത്തിയെന്നു പറഞ്ഞിരുന്നു ആ ഓക്കേ ഓക്കേ വേഗം വരുമായിരുന്നെങ്കിൽ എനിക്ക് അർജെൻ്റ് ആയിരുന്നു കുറച്ച് ആ പക്ഷെ നിങ്ങളെ കാണുന്നില്ല ഞാൻ ഞാനിവിടെയൊക്കെ നോക്കി ഏതാണ് വണ്ടി സ്വിഫ്റ്റാണോ ആ സ്വിഫ്റ്റ് തന്നെയാണ് അല്ലെ ആ ഓക്കേ ഓക്കേ പക്ഷെ വണ്ടി കാണുന്നില്ല ഞാൻ കുറേ നേരമായി ഇവിടെ നിൽക്കുന്നു നിങ്ങൾ നേരത്തെ വിളിച്ചപ്പോൾ ഇവിടെ എത്തിയെന്നു പറയുകയും ചെയ്തു പക്ഷെ ഇവിടെ കാണുന്നും ഇല്ല ആ ഹാ ഹാ ഹാ ഹാ ആ ഉഡുപ്പി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലൊരു പലചരക്ക് കടയുണ്ട് ഞാനവിടെയാണ് നിൽക്കുന്നത് ആ അതേയതേയതേ ഒരു പലചരക്ക് കട അതായത് കൈരളി സ്റ്റോറെന്നു പറഞ്ഞൊരു പലചരക്ക് കടേൻ്റെ ഫ്രണ്ടിൽ ആ നിങ്ങളതിൻ്റെ ഓപ്പോസിറ്റാണോ ഓക്കേ ഓക്കേ ആ ലൊക്കേഷൻ ഞാൻ ഇവിടുത്തെ ലൊക്കേഷൻ ആണ് കൊടുത്തത് ഈ പലചരക്ക് കടേൻ്റെ ലൊക്കേഷൻ പക്ഷെ അപ്പുറത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് തോന്നുന്നു നിങ്ങളൊന്ന് ആ റൗണ്ട് അടിച്ചിട്ട് ഒന്ന് യൂ ടേൺ എടുത്തിട്ട് ഇങ്ങോട്ട് വരുമോ ആ ഓക്കേ വേഗം വരൂ കേട്ടോ ഓക്കേ ഓക്കേ